എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ട ബാല്യകാല ഓർമ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മറക്കാനാവാത്ത കുട്ടിക്കാലം മുഴുവൻ ഞാൻ ഓർക്കുന്നത് നമ്മൾ ആ ചെറുപ്രായത്തിൽ കളിക്കുന്ന കുഞ്ഞു കുഞ്ഞു കളികളാണ് നമ്മുടെ തൊട്ടു കളി അതുപോലെ തന്നെ നമ്മൾ കുട്ടിയും കോലും ഒക്കെ കളിക്കും അതായത് ചെറിയൊരു കോലെടുത്തിട്ട് അത് കല്ലിൽ വച്ചിട്ട് നമ്മൾ കളിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ മണ്ണപ്പം ചുട്ടു കളിക്കുന്നത് മണ്ണെല്ലാം കൂട്ടി കൊഴച്ച് അത് നമ്മൾ പുട്ടു പോലെ ആക്കിയിട്ട് കൊടുക്കും അതുപോലെ തന്നെ ഇലകളെല്ലാം പറിച്ച് കറികളൊക്കെ ഉണ്ടാക്കി നമ്മൾ വിളമ്പി കൊടുക്കും അപ്പം അമ്മയും കുട്ടിയൊക്കെ കളിക്കുക എന്നു പറയുമ്പം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ അമ്മ ആവാനും അച്ഛൻ ആവാനും ഒക്കെ പഠിക്കുകറ്റയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തിലെ ഒരു അനുഭവം തന്നെയാണ് അ കുഞ്ഞു കാലത്ത് ഞങ്ങൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തൊട്ടു കളി കള്ളനും പോലീസുമൊക്കെ ഉള്ളത് നമ്മൾ എന്താണ് പറയുക ഏറ്റവും കൂടുതൽ ആളുകളെല്ലാം സ്നേഹത്തോടെ കഴിയുക അ കുഞ്ഞു കുട്ടികളെല്ലാം ഒരുമിക്കുക ഒരുമിക്കുകയാണല്ലേ എല്ലാവരും കൂടെ എന്ത് മനോഹരമായിട്ടാണ് ആ കളികൾ കളിക്കുന്നത് അതിലൂടെ സ്നേഹം പങ്കിടുന്നു വാത്സല്യം കൈമാറുന്നു ആരാണ് അമ്മ ആരാണ് അച്ഛൻ ആരൊക്കെയാണ് ഏതൊക്കെ വേഷങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തന്നെ ചെറുപ്പത്തിൽ തീരുമാനിക്കുകയാണ് അതു വഴി നമ്മുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ആ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ എന്തോരം ആൾക്കാരുടെ റോൾ മോഡൽ ആ ണ് അഭിനയിക്കുന്നത് അച്ഛൻ ആവാനും അമ്മ ആ വാനും എനിക്ക് വലുതായിട്ട് ആരാവണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കും ഞാൻ ഡോക്ടറാണ് അല്ലെ ഞാൻ ടീച്ചറാണ് പഠിപ്പിക്കുക ഒക്കെ ചെയ്യും നമ്മൾ അച്ഛനും അമ്മയുമായിട്ടൊക്കെ മാറിയിട്ട് ഞാൻ ടീച്ചറാണെന്ന് ഒക്കെ പറഞ്ഞ് കുട്ടികളോടെക്കെ എന്ത് മനോഹരമായിട്ട് സംസാരിച്ചിട്ടാണ് ആ ചെറിയ പ്രായത്തിൽ നമ്മൾ അഭിനയിക്കുന്നത് അപ്പം അതൊക്കെ തന്നെയാണ് ആ ഒരു കുഞ്ഞു പ്രായത്തിലെ എനിക്ക് ടീച്ചറ് ആവാൻ വലിയ ആഗ്രഹമായിരുന്നു ആ ഒരു ആഗ്രഹമാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഇപ്പം ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് പ്രയത്നിക്കുന്നത് അപ്പം കുഞ്ഞു നാളിലുണ്ടാവുന്ന ആ ചെറിയ ചെറിയ കുഞ്ഞ് അനുഭവങ്ങളൊക്കെയാണ് നമുക്ക് വലുതായിട്ട് നമ്മൾ ആരാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പം അതെല്ലാം ആണ് എൻ്റെ ബാല്യത്തിലെ മനോഹരമായിട്ടുള്ള സ്മരണകൾ ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് അത് എന്നും സവിശേഷമായിട്ട് തന്നെ ഇരിക്കും ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും ആ ഒരു കുഞ്ഞു നാളിലത്തെ ഓർമ്മ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാനാവാത്തൊരു കാര്യമാണല്ലേ ഒന്നും പേടിക്കാനില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിച്ചാൽ മാത്രം മതി അല്ലെ ഉത്തവാദിത്തങ്ങളൊന്നും ഇല്ലാതെ എന്ത് മനോഹരമാണ് നമ്മുടെ എല്ലാം കുട്ടിക്കാലം